കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപാട് ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളും ചരിത്രപരമായ സ്ഥലങ്ങളും ഉണ്ട് ഇപ്പോൾ ദീപാഞ്ജലി ആയിക്കോട്ടെ അതുപോലെ കണ്ണംപറമ്പ് ജുമാ മസ്ജിദ് മുഗദാർ ബീച്ച് അതുപോലെ ക്ഷേത്രങ്ങള് കോട്ടകള് മ്യൂസിയങ്ങള് പ്രകൃതി സവിശ ഇങ്ങനെ ഒരുപാടൊരുപാട് ലാൻഡ്മാർക്കുകൾ ഉണ്ട് ഇപ്പോൾ അവിടെയുള്ളൊരു എം ജി റോഡ് എന്ന് പറയുന്നത് ച അതിൻ്റെ ലാൻഡ്മാർക്കാണ് അതേപോലെത്തന്നെ റഹ്മത്ത് ഹോട്ടൽ ഇപ്പോൾ പണ്ട് മുതല് ഒരുപാട് കാലം മുതല് ഇന്ന് വരെ കേട്ടറിവുള്ള ഒര് ലാൻഡ്മാർക്കാണ് കോഴിക്കോട് മാ ജില്ലയുടെ മാത്രമായ ഒരു ലാൻഡ്മാർക്കാണ് റഹ്മത്ത് ഹോട്ടല് അവിടെയുള്ള ബിരിയാണി അതൊക്കെ അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ അല്ലെങ്കിൽ മ്യൂസിയങ്ങളിലും ഹോട്ടലുകളിലൊക്കെ പോകുന്ന നമുക്ക് മുൻ അതിന് മുൻപ് നമ്മളതിന് ടിക്കറ്റെടുക്കണം ഇപ്പോൾ ഈ മ്യൂസിയത്തില് കയറാനാണെങ്കിലും കോട്ടകളിലേക്ക് കയറാനാണെങ്കിലും അതിന് ടിക്കറ്റെടുത്തിട്ട് വേണം മാത്രമേ നമുക്ക് അതിലേക്ക് കയറാനുള്ള ഒരു അനുമതിയുള്ളു അനുമതി കിട്ടണമെങ്കിൽ തന്നെ നമുക്കത് ഒരു നിശ്ചിത ഒരു പൈസ കൊടുത്തിട്ട് നമ്മള് ഒരോർത്തർക്കും ടിക്കറ്റെടുക്കണ്ടതുണ്ട് അത്പോലെ ജുമാ മസ്ജിദിലും അതുപോലെ ക്ഷേത്രങ്ങളിലൊന്നും പോകുമ്പം നമുക്ക് ടിക്കറ്റെടുക്കണ നമുക്കത് പുരാതനമായ അല്ലെങ്കിൽ ചരിത്രപരമായ ക്ഷേത്രങ്ങളൊക്കെയാണ് അതുകൊണ്ടതിന് നമുക്ക് ഓരോർത്തർക്കും അത് കാണാനുമുള്ളൊരു അവകാശം നമുക്ക് അതിന് ആരോടും ചോദിക്കേണ്ടതോ പറയേണ്ടതോ ആയിട്ടില്ല അതുപോലെ കോഴിക്കോട് ജയിലിലെ ഒരുപാട് ആൾക്കാരും അവരുടെ ഒഴിവ് സമയങ്ങൾ അല്ലെങ്കിൽ സ അവർക്ക് ഒരു ട്രിപ്പല്ലെങ്കിൽ ഒര് വൈകുന്നേരങ്ങളിലൊക്കെ പോയി ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബീച്ചാണ് കാപ്പാട് ബീച്ച് അതുപോലെ ആ ബീച്ചുകളില് പോയി ഇരിക്കാനും അതുപോലെ അവിടെയുള്ള ഓരോ ഉപ്പിലിട്ട ഓരോ ഫുഡൊക്കെയുണ്ട് അതൊക്കെ കഴിക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ് അവരുടെ ഒഴിവ് സമയങ്ങള് അവരതിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത്